ആ ഇത് വെജിറ്റബൾ ഡീലറല്ലേ

സ്ഥലം വയനാട്

വയനാട് സുൽത്താൻ ബത്തേരി അവിടെയായിട്ട് ആ ആ ഞങ്ങൾക്ക് ഒരു സദ്യയ്ക്ക് അവശ്യമായിട്ടുള്ള എല്ലാം വേണം നിങ്ങളുടെ റേറ്റ് ഒക്കെ എത്രയാ വരുന്നത്

ആണല്ലേ ആ ഇപ്പോൾ ഉള്ളിക്കൊക്കെ എത്രയാ കിലോയ്ക്ക് ആ ആ ആ ആ ഓക്കെ ഓക്കെ ആ അപ്പോൾ ഇത് നല്ല ഫ്രഷ് ആയിരിക്കണം വെജിറ്റബിൾസ് പിന്നെയെന്താ ആ ഓർഗാനിക്ക് ആയിരിക്കണേ ആ ഞങ്ങൾക്ക് അപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി വേണം പിന്നെ തക്കാളി ക്യാരറ്റ് ആ അതേ സദ്യയാണ് ആ ആ ശരി ഞാൻ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് പറയാട്ടോ ആ ഫംഗ്ഷൻ ആറാം തീയ്യതി ആണ് അഞ്ചാം തീയ്യതി ആവുമ്പോഴത്തേക്കും എത്തിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു

ആ ഞാൻ ലൊക്കേഷൻ ഇട്ടു തരാം ലൊക്കേഷൻ ഷെയർ ചെയ്യാം ആ ആ ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു ആ വെജിറ്റബളും അല്ലാതെയും ഉണ്ട് ആ ബോഫെ ആണ് അപ്പോൾ വെജിറ്റബൾ വേണ്ടവർക്ക് അത് അങ്ങനെയും സദ്യ ഉണ്ടാക്കാമെന്നു വച്ചു അതിനു ആവശ്യം നോൺവെജ് ഇല്ലല്ലോ ആ ഓക്കെ

ആ ഞാൻ ആൾക്കാരെ അനുസരിച്ചിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എത്രയാ വേണ്ടതെന്ന് അല്ലെങ്കിൽ വിളിച്ച് പറയാം അപ്പോൾ മൊത്തത്തിലുള്ള ലിസ്റ്റ് വേണ്ടേ നിങ്ങൾക്ക് ആ

ആ ഓക്കെ ആ ഞാൻ അറിയിക്കാം എന്നാൽ ആ വേറെ ആ ശരി എന്നാൽ